കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് യൂട്യൂബർ ആണ് കേരളത്തിൽ ഇന്നു ലോകത്ത് കൂടുതലായി വളർന്നു വന്നു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആസ്വദിക്കുവാനും കൂടുതൽ വർക്ക് ചെയ്യുവാനും അവരത് ആഗ്രഹിക്കുന്നു യുവജനങ്ങളിലേക്ക് കൂടുതലായി യൂട്യൂബേഴ്സ് കടന്നു വന്നാണ് ഇതിനു പ്രചോദനമായിരിക്കുന്നത് ജീവിതത്തിൽ നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് പണമുണ്ടാക്കുക എന്നുള്ളതാണ് ചെറുപ്പക്കാർ ജീവിതത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് അവർ ചെയ്തു കൊണ്ടിരിക്കുന്നത് അവർക്ക് നിസ്സാര ജോലിയിൽ നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുന്ന ബിസിനസ്സിലേക്കാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത് കാശ് നടന്മാർ അതുപോലെയുള്ള സിനിമ മേഖലളിലേക്കും അവർ കൂടുതലായി കാല്വെപ്പു നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് സഞ്ചരി സഞ്ചാരയോഗ്യമായ രി സഞ്ചാരികൾക്ക് ആവശ്യമായ ഗൈഡൻസിന് നൽകുവാനും യുവജനങ്ങൾ തയ്യാറായി വന്നിരിക്കുകയാണ്